ആ ഞാനിപ്പോൾ ഈ ഓൺലൈനായിട്ടൊരു ബെഡ്ഷീറ്റ് വാങ്ങിയായിരുന്നു നിങ്ങടേന്ന് ഞാൻ വേറെയും ഒരുപാട് പ്രൊഡക്ടസ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊത്തിരി എക്സ്പെൻസിവായിട്ടുള്ള ഒന്നായിരുന്നു പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു നല്ലതാണ് കാണാൻ നല്ല ഇൻ്ററസ്റ്റിങായിട്ട് തോന്നീട്ടാണ് ഞാനത് ഓർഡറ് ചെയ്തത് പക്ഷേ സാധനം കയ്യിൽക്കിട്ടിയപ്പൊഴും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഫസ്റ്റ് വാഷിൽ തന്നെ ആ തുണിയാകെ പോയി എന്തുവാണ് അതിൻ്റെ സൈസും ചെറുതായി ഡബിൾ ബെഡ്ഷീറ്റായിരുന്നു അതിൻ്റെ സൈസും ചെറുതായി പില്ലോ കവറെല്ലാം ചെറുതായി അതിനകത്ത് പില്ലോ ഇടാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി ഇത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയി ഞാൻ ഇത്രയും നാളായിട്ടും വാങ്ങിയിട്ട് ഇങ്ങനെയൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരനുഭവം ഉണ്ടാവുന്നത്